കേരളത്തില് നടുഭാഗത്തുള്ള ജില്ലയെന്ന നിലയ്ക്ക് അങ്ങനെയൊരുപാട് കാലാവസ്ഥ വ്യതിയാനങ്ങളില്ലാത്ത ഒരു ജില്ലയാണ് തൃശ്ശൂര് അങ്ങനെ ഭയങ്കര ചൂടോ ഭയങ്കര മഴയോ ഭയങ്കര തണുപ്പോ അങ്ങനെയൊന്നുമില്ലാത്തൊരു ജില്ലയാണ് തൃശ്ശൂര് എല്ലാം ആവറേജായിട്ട് ജീവിച്ചു പോകാവുന്ന ഒരു ജില്ലയാണ് വേനല്ക്കാലത്ത് നല്ല ചൂട് വരാറുണ്ട് ഞാന് ജീവിക്കുന്നത് ഒര് മല അങ്ങനെയൊരു മലപോലത്തൊരു സ്ഥലത്താണ് അതുകൊണ്ട്തന്നെ തണുപ്പ് കാലം ഡിസംബര് ഒ നവംബര് അങ്ങനെത്തെ ടൈം ആകുമ്പോൾ ഒരു ചെറിയ മൂടല്മഞ്ഞും തണുപ്പും അങ്ങനെയെല്ലാമുണ്ടാവാറുണ്ട് പിന്നെ ഒര് സമയം ഞങ്ങള് മഴ മഴ പെയ്തിട്ടിങ്ങനെ കല്ല് വീണത് പോലെ സാ ശബ്ദം കേട്ട് പുറത്തിറങ്ങി വന്നപ്പോൾ ആലിപ്പഴം വീയ് വീഴുന്നത് കണ്ടു എന്റെ ജീവിതത്തിലെ ഏറ്റവും ഒരു നല്ല എക്സ്പീരിയന്സായിരുന്നു അത് ആദ്യമായിട്ട് ഞാന് ആലിപ്പഴം വീഴുന്നത് കാണുന്നതന്നായിരുന്നു അങ്ങനെ നല്ലൊരെക്സ്പീരിയന്സായിരുന്നു അത് തൃശ്ശൂര് ജില്ലയില് മാത്രം കണ് കണ്ടു എന്നാണ് പിന്നെയുള്ള വാര്ത്തകളില് എല്ലാം കണ്ടത് പിന്നെ മഴ മഴക്കാലം വരുമ്പോൾ തന്നെ ഭയങ്കര മഴ ഇടയ്ക്ക് ഉണ്ടാകാറുണ്ട് എന്നാല്പ്പോലും ഭയങ്കര വെള്ളപ്പൊക്കം അങ്ങനെയൊന്നും ഉണ്ടാകാറില്ല തൃശ്ശൂര് ജില്ലയില് ഒര് നിരപ്പായ ഒരു സ്ഥലം എന്ന സ്ഥിതിക്ക് ഭയങ്കര വെള്ളപ്പൊക്കമോ അങ്ങനെയൊന്നുമുണ്ടാവാറില്ല